മലയാളികൾ സാംസ്കാരിക പാരമ്പര്യങ്ങളെ ആഘോഷിക്കുന്ന ഒന്നാമത് നമ്മൾ ആഘോഷങ്ങളെ കൂടുതൽ ആഘോഷം കൂടുതൽ മനോഹരമാക്കിക്കൊണ്ട് ഒത്തുചേരലുകളിലൂടെ അതിൻ്റേതായ തനിമയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഒക്കെയാണ് കൂടുതലും പിന്നെ എവിടെ മലയാളികൾ ഉണ്ടേങ്കിലും അവിടെയൊരു കൂട്ടായ്മ ഉണ്ടാവും ആ കൂട്ടായ്മ ഒരു ഭയങ്കര ഒരു ബലവത്തായൊരു സ്നേഹമായിരിക്കും ആ സ്നേഹത്തിലൂടെ ഇങ്ങനെയുള്ള ഏത് ആഘോഷം വന്നാലും അതൊരു വലിയൊരു ആഘോഷമാക്കി അവർ കൊണ്ടാടുന്നു അതൊരു വലിയ ഒരു ഭാഷ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മാർഗം പിന്നെ ലോകത്തിൽ എവിടെ ചെന്നാലും മലയാളികളെ കാണാൻ പറ്റുന്നു അത് അവിടെ അത് മലയാളികൾ വേ ഒരു വേറൊരു മലയാളി ഉണ്ട് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ അവരെ അന്വേഷിച്ച് തേടിപ്പിടിച്ച് കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ പറ്റുന്നത് ഒക്കെ ചെയ്യുന്നു അതൊക്കെ ഒരു മ ഭാഷയോടുള്ള സ്നേഹവും ഭാഷയോടുള്ള കൂട്ടായ്മ ആയിട്ട് കരുതാം പിന്നെ സംസ്കാരം എന്നു പറയുന്നത് നമ്മുടെ ഓരോ ജില്ലകളിലും ഓരോ സാംസ്കാരികമായ കാ കാര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് അതൊന്ന് അതൊന്നും വേറിട്ട ഒരു കാഴ്ച്ചപ്പാടിൽ അല്ലാതെ ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ അവർ അതിനെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രാദേശികമായ വിഭാ വിഭാഗിതയുടെയോ ഒന്നും കണ്ണിലൂടെ കാണാതെ ഒരു മലയാളി എന്നുള്ള സ്നേഹത്തോടെ അല്ലെങ്കിൽ മലയാളി എന്നുള്ള ഒരു കരുതലിലൂടെ പരസ്പരം ഒരു ഒരു കൂട്ടായ്മ ആയിട്ട് എവിടെ ചെന്നാലും പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ഭാഷയുടെ ആഘോഷം എന്നോ പാരമ്പര്യം എന്നോ സാംസ്കാരിക കൂട്ടായ്മ എന്നൊക്കെ അതിനെ പറയാവുന്നതാണ്